വ്യത്യസ്ത ഋതുക്കൾ എന്നു പറയുന്നത് ഇപ്പം മഴക്കാലമായാലും വേനൽക്കാലമായാലും മഴക്കാലമായാലും ഞങ്ങൾ ഏറെ പേർക്ക് മഴ ആസ്വദിക്കാൻ ഭയങ്കര സുഖമായിരിക്കും മഴക്കാലത്ത് ഒരു ചൂട് കാപ്പിയും വടയും അതൊക്കെ കഴിക്കാനും ഭയങ്കര ആസ്വദിക്കാൻ ഭയങ്കര സുഖമായിരിക്കും മഴ കൊള്ളാനും എല്ലാം വേനൽക്കാലം എന്ന് പറയുന്നതുപോലെ ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ ഇപ്പം നമ്മൾ പാരന്റ്സിൻ്റെ വീട്ടിലേക്കു പോയാലും അവിടുന്ന് ഒരു വെടിക്ക് കുളത്തിലേക്ക് ചൂണ്ടയിടാൻ പോകേം കാടുകളിലേക്കാണെങ്കിലും ഒരു പഴങ്ങൾ പറിക്കാനും ഉച്ച ഭക്ഷണത്തിന് വേണ്ടീട്ടും ഒരു കുസൃതികൾ ഒപ്പിക്കാനും എല്ലാം നല്ല കാലാവസ്ഥയാണ് ഋതുക്കൾ ആണെന്ന് വിശ്വസിക്കുന്നു